ഇന്നത്തെ കാലത്ത് ഏതെല്ലാം നൃത്ത രീതികളാണ് എല്ലാ തരം നൃത്ത രീതികളിലും പോകുന്ന ആൾക്കാരുണ്ട് അതായത് ഒരു സ്പെസിഫിക്ക് ആയിട്ടുള്ള ഒരു നൃത്ത രീതി പറയാനായിട്ട് പറ്റില്ല ഓരോ ആൾക്കാരുടെയും മനസ്സ് മൈൻഡിലുള്ള ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ് ചില ആൾക്കാർക്ക് ഭയങ്കര ക്ലാസിക്കലായിട്ടുള്ള ഡാൻസ് ആണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് വെസ്റ്റേണായിട്ടുള്ള ഡാൻസുകളായിരിക്കും ഇഷ്ടം ഇപ്പം ക്ലാസിക്കലിൽ തന്നെ പലതരം ഉണ്ട് ഇപ്പം ഭരതനാട്യം ഉണ്ട് മോഹിനിയാട്ടം ഉണ്ട് കഥക് ഉണ്ട് അങ്ങനെ പലതുണ്ട് ചിലപ്പം അതിൽ തന്നെ വേറെ വേറെ ഇഷ്ടപ്പെടുന്ന ഇപ്പം ഭാരതനാട്യം മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഉണ്ടാകും പിന്നെ വെസ്റ്റേണിലേക്ക് പോകണം വെസ്റ്റേണിലേക്ക് പോണമെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ കുറെ ഡാൻസുകളുണ്ട് ഹിപ്പ് ഹോപ്പ് ഉണ്ട് അങ്ങനെ കുറെ ടൈപ്പ് ഓഫ് ഡാൻസ് ഉണ്ട് പിന്നെ നാടോടിനൃത്തം ഉണ്ട് അപ്പം എല്ലാ പല അത് ഓരോ ആൾക്കാരുടെയും മൈൻഡ് സെറ്റിന് അനുസരിച്ച് ആയിരിക്കും ഓരോ നൃത്ത രീതികളിലേക്ക് അവർ തിരിഞ്ഞു പോകണത് ഇപ്പോൾ ഞാൻ ഒരു ഡാൻസ് കളിക്കുന്ന കുട്ടിയാണ് അപ്പോൾ എനിക്ക് ഇത്രനാളും എനിക്ക് ഇഷ്ടം വെസ്റ്റേൺ ആയിട്ടുള്ള ഡാൻസ് കളിക്കാനും സിനിമാറ്റിക് ആയിട്ടുള്ള ഡാൻസ് കളിക്കാനും ആയിരുന്നു അപ്പോൾ ക്ലാസിക്കിനോട് എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല പക്ഷേ കോളേജ് ഒരു ലാസ്റ്റ് ഇയർ ഒക്കെ ആയപ്പോൾ തൊട്ട് എനിക്ക് ക്ലാസിക്കൽ ഡാൻസ് അതായത് ഭാരതനാട്യം കഥക് ഒക്കെ പഠിക്കാൻ ആയിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് മോഹിനിയാട്ടം ഇല്ല പക്ഷേ ഈ ഭരതനാട്യം കഥക്ക് ഇതൊക്കെ പഠിക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി തുടങ്ങി എനിക്ക് ഇപ്പം അത് അതിനുവേണ്ടി ചേരാൻ വേണ്ടി നിക്കുമ്പം ഓരോ ആൾക്കാരുടെ ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ ഓരോ സമയത്തിനനുസരിച്ചും അത് മാറി മാറി വരും പിന്നെ ട്രെൻഡ് എന്താണ് അത് ഇപ്പോൾ നമ്മൾ കുറെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് അതിനോട് ഒരു ഇൻട്രസ്റ്റ് തോന്നും അങ്ങനെയൊക്കെ പഠിക്കാൻ ആയിട്ട് പോണതുണ്ട് പിന്നെ നൃത്തത്തിനോട് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാ രീതികളും പഠിച്ച് പഠിക്കാനായിട്ടും ഇൻട്രസ്റ്റ് കാണിക്കുന്ന ആൾക്കാരുഉണ്ട്